കോഴിക്കോടിനെ നമ്മള് പിന്നെ ഏറ്റവും മനോഹരമായിട്ട് വിശേഷിപ്പിക്കുവാണെങ്കില് ക്യാപിറ്റൽ സിറ്റി ഓഫ് മലബാർ അതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിൻ്റെ തലസ്ഥാനം ആണ് കോഴിക്കോട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കോഴിക്കോട് ഭരിച്ചിരുന്നതൊക്കെ സാമൂതിരിമാരൊക്കെയാണ് മ് ഓരോരോ സാമൂതിരി അതായത് അവര് ആ കോഴിക്കോട് ജില്ല ഭരിച്ചിരുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന പേര് അതായത് നമ്മുടെ കോഴിക്കോട് ജില്ല ഭരിക്കുന്ന ആൾക്കാരെയൊക്കെ പണ്ട് കാലത്ത് വിളിച്ചിരുന്നത് സാമുതിരി എന്നാണ് അതേപോലെ തന്നെ കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജനുവരി ഒന്നാം തിയതി ആണ് കോഴിക്കോട് ജില്ല പിന്നെ നിലവിൽ വന്നത് പിന്നെ എർണാട് രാജാവിൻ്റെ കാലത്താണ് ഈ പട്ടണത്തില് ഐ ഒരു കോട്ട പണിയുകയൊക്കെ ചെയ്തു പിന്നെ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കില് ഏറ്റവും നല്ല തുറമുഖം കേരളത്തില് കുറെ ജില്ലകളുണ്ട് പതിനാല് ജില്ലയില് ചില ജില്ലകൾ ഇപ്പം പറയുകയാണെങ്കില് തുറമുഖമൊന്നും ഇല്ലാത്ത ജില്ലകളുമുണ്ട് പക്ഷേ കോഴിക്കോട് എന്ന് വെച്ചിട്ടിണ്ടെങ്കില് ഏറ്റവും നല്ല തുറമുഖമുള്ളത് കോഴിക്കോടാണ് അതായത് അറബി മറ്റ് സ് സ്ഥലങ്ങളിലേക്ക് കപ്പൽ മുഖേന സാധനങ്ങള് കൊണ്ടുകൊടുക്കാനൊക്കെ പറ്റുന്നത് നമ്മുടെ കോഴിക്കോടിൽ നിന്നാണ് കെട്ടോ പിന്നെ ആയിരത്തി തൊള്ള ആയിരത്തി നാന്നൂറ്റി തൊന്നൂട്ടെട്ടിലാണ് പോർച്ചുഗീസിൽ നിന്ന് വാസ്കോഡഗാമ കപ്പൽ മാർഗം നമ്മുടെ കാപ്പാട് വന്നിറങ്ങുന്നത് പിന്നെ അതായത് കപ്പൽ അതായത് പോർച്ചുഗീസല്ല നമ്മുടെ ബ്രിട്ടീഷുകാര് ആദ്യമായിട്ട് കാപ്പാട് വന്ന് കാപ്പാട് ബീച്ചീൽ വന്ന് വാസ്കോഡഗാമ ഇറങ്ങുന്നത് ആയിരത്തിതൊള്ളായി ആയിരത്തി നാന്നൂറ്റി തൊന്നൂറ്റിയെട്ട് യിലാണ് പിന്നെ കോഴിക്കോട് പിന്നെ കോഴിക്കോട് നിന്ന് ബേപ്പൂർ തുറമുഖത്തിലേക്ക് ജസ്റ്റ് ഒരു പന്ത്രണ്ട് കിലോമീറ്ററൊക്കെയുള്ളൂ അവിടുന്ന് ഇന്നും അതായത് ഇന്നും കപ്പൽ മാർഗം മറ്റ് അതായത് ഇപ്പം എന്താ പറയുക കോഴിക്കോട് നിന്ന് നമുക്ക് സൗദിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗോ ഗോവയല്ല മറ്റ് സ്ഥലങ്ങളൊക്കെയുണ്ടല്ലോ ഈ തുറമുഖങ്ങളും അതായത് ദീ ലക്ഷദ്വീപിലേക്കൊക്കെ രണ്ട് കപ്പലൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം കോയിൽ കോട്ടയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന സ്ഥലം പിന്നീട് കോഴിക്കോട്ടായി എന്നൊരു കഥയുണ്ട് കൃത്യമായിട്ടറിയില്ല പിന്നെ കോഴിക്കോടിൻ്റെ മുഖ്യമായിട്ടുള്ള സ്ഥലമാണ് കുറ്റിപ്പുറം അവിടൊരു പള്ളി ഉണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ഒരു ക്രിസ്റ്റിയൻ അല്ല ഒരു അമ്പലമുണ്ട് ശിവക്ഷേത്രമുണ്ട്